ഹെൻസാണ് വിളിച്ചത് എന്തായിരുന്നു കംപ്ളെയിൻറ്റ് വീട് എല്ലാം കംപ്ലെയിൻറ്റുകളെല്ലാം തീർത്ത് തന്നതായിരുന്നല്ലോ വീട് അതിൻ്റെ മോട്ടറിന് എന്തേലും കംപ്ലെയിൻറ്റ് കാണും അതെല്ലാം നമ്മൾ ഇന്നലെ ശരിയാക്കിയതായിരുന്നല്ലോ അതെന്താണ് കുഴപ്പം ഞാൻ ഇലക്ട്രിസിറ്റി ബോഡ്കാരെയൊന്ന് വിളിച്ച് നോക്കട്ടെ എന്താ അവിടെ ലൈൻറ്റെ എന്താ പ്രശ്നം എന്നൊന്ന് അറിയട്ടെ വല്ല കമ്പ് വല്ലം വെട്ടാൻ കാണും മരത്തിൻ്റെ കമ്പ് വല്ലോം പൊട്ടി കിടക്കുവായിരിക്കാം അപ്പം ആ അപ്പം അത് മിക്കവാറും

ഇതിപ്പം മോട്ടറ് കംപ്ലയിൻറ്റ് ഇപ്പം മിക്സ് ആ മോട്ടറിലെ കംപ്ലെയിൻറ്റ് ഇങ്ങനെ നമ്മളൊന്ന് പരിഹരിച്ചതായിരുന്നു എക്സ്ട്രാ പൈസ ഒത്തിരി ഇറങ്ങിയതാണ് എന്തായാലും ഇത്രയ്ക്കല്ലേ വാടക തരുന്നുള്ളൂ അതിനിടക്ക് ഞങ്ങൾ കംപ്ലെയിൻറ്റൊക്കെ എത്ര പ്രാവശ്യമാണ് പരിഹരിക്കുന്നത് അപ്പം കുട്ടികളെന്തെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം പൈപ്പോ വല്ല കാര്യങ്ങളോ എന്തേലും ആ അതെന്താന്നുള്ളത് ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒന്ന് വിളിച്ച് നോക്കട്ടെ അവർ ഒന്ന് കിട്ടുവാണെങ്കിലെ അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അവരാരേലും വന്നാൽ അതൊന്ന് കമ്പെല്ലാ ഒന്ന് വെട്ടി കളയുമ്പം ചിലപ്പം അത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുവായിരിക്കും വേറെ എന്തേലും എന്തായാലും വീട് ഒന്ന് നന്നായിട്ട് സൂക്ഷിക്കണം കുട്ടികളോടാണേലും പറയണം ഭിത്തിയിലൊക്കെയൊന്നും കുത്തി വരയ്ക്കാതെയൊക്കെ നോക്കണം നിങ്ങൾക്ക് പുതിയതായിട്ട് പെയിൻറ്റടിച്ചങ്ങോട്ട് തന്നതാണ് വീട് അപ്പോൾ അത് ആ അതൊക്ക ഒരു ശ്രദ്ധ വേണം എനിക്കാണേ എപ്പോഴുമങ്ങോട്ടൊന്നും വന്ന് നോക്കാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ആ ഓക്കേ ആ അപ്പം എന്തായി കരണ്ടിൻ്റെ കാര്യത്തിനൊക്കായിട്ട് പൈസ ഒത്തിരി ഇറങ്ങും കഴിവതും അടുത്ത മാസത്തെ വാടകയൊന്ന് ഇച്ചിരി നേരത്തേ തരാൻ നോക്കണം ആ ഞാൻ എന്തായാലും അവരെയൊന്ന് ആ ആ അതായിരിക്കും അങ്ങോട്ടെല്ലാം മൊത്തം മരങ്ങളാണല്ലോ അവിടെ കുറെ വെട്ടാനുണ്ട് ഞാനിന്നാൾ അവരോട് ആ ലൈൻമാനോടൊന്ന് പറഞ്ഞതായിരുന്നു അതൊന്ന് വെട്ടുന്ന കാര്യം അപ്പം അതൊന്ന് ആ ഞാനൊന്ന് നോക്കാം അവരെ കൊണ്ട് ദേ ഇന്ന് ഇന്ന് തന്നെ വന്നൊന്ന് നോക്കിക്കാം എന്നിട്ട് അതൊന്ന് വെട്ടി കളയാൻ നോക്കാം ആ ലൈൻ കമ്പീന്ന് സ്പാർക്ക് വല്ലോം വരുന്നുണ്ടോ കൂട്ടിമുട്ടി

ആ ഹാ അത് ശരി ആ അപ്പം അത് എന്തായാലും ഞാനൊന്ന് വരട്ടെ വന്നിട്ട് നോക്കീട്ട് അവരെയും കൊണ്ട് വന്ന് നോക്കിക്കാം കേട്ടോ ആ ഞാൻ ഒന്ന് വിളിക്കട്ടെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കൊന്ന് വിളിക്കട്ടെ ഓക്കേ